നമ്മൾടെ അടുത്ത് വള ആദിവാസികളൊക്കെ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കൂടുതലായി വയനാട് പ്രദേശങ്ങളുണ്ട് അതുപൊലെ തന്നെ ഗവി എന്ന് പറയുന്ന പത്തനംതിട്ടയിലുള്ള അടുത്തുള്ള ഗവി പ്രദേശത്തൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലും ആദിവാസികൾ ആയിട്ടുള്ളവർ താമസിക്കുന്നത് അവർ അവർ അവരുടെ കലാപരമായ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവരുടെ കുമ്പപ്പാട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നാടോടി നൃത്തങ്ങൾ ഒക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് അവരെ അവരുടെ ഒരു പ്രോഗ്രാം വരുമ്പോഴേ അവർ അത് കാണിക്കുള്ളൂ അല്ലാതെ നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെയുള്ള രീതിയിലേക്ക് പോകാൻ സാധിക്കില്ല അവരുടെ ഒരു എന്തെങ്കിലും ആഘോഷമായ പരിപാടികളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വളരെ നല്ല അതുപോലെ തന്നെ പാവകളിയുണ്ട് നാടോടി നാടകങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരിപാടികൾ അവർ നടത്താറുണ്ട് അത് ആദിവാസികളുടെ ഒരു തനതായിട്ടുള്ള കലാരൂപമാണ് കാരണം നമ്മുടെ മറ്റുള്ള സമൂഹത്തിലൊന്നും തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാ കാര്യങ്ങൾ കാണാറില്ല അവ അവർക്ക് മാത്രമായിട്ട് അവർ നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് അത് അവരുടേതായ രീതിയിൽ അവർ പലപ്പോഴും അവതരിപ്പിക്കാറുണ്ട് അത് നമുക്ക് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ അവരുടെ എന്തെങ്കിലും പിന്നെ പരിപാടികൾ നടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ കാണാനായിട്ട് സാധിക്കും അത് ഞാൻ കാണാൻ ശ്രമിക്കാറുമുണ്ട്